കൂടുതലായി കണ്ടുവരുത്തത് ഉത്സവങ്ങളിലും പ്രതക്ഷണങ്ങളിലും ചന്തക്കടകളിലാണ് വളരെ മനോഹരമായ ചന്തക്കടകളിൽ പലതരം ആഹാരങ്ങൾ പലതരം കളിപ്പാട്ടങ്ങൾ കൂടുതലും ആകർഷിക്കുന്നത് കുട്ടികളെയാണ് അതുകൊണ്ടുതന്നെ നല്ലരീതിയിൽതന്നെ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനോടൊരു ഇഷ്ട്ടം തോന്നുന്നുണ്ട് കൂടുതലും പാർത്ഥനകളും ഉത്സവങ്ങളും എല്ലാം തീർത്ഥാടങ്ങളും ഒരു വരുമ്പോൾ ഇതെല്ലാം ഒരു അലങ്കാരമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുപോലുള്ള ചെറിയ ചന്തക്കടകളാണ്